ഹാലോ പാൻ കാഡ് ഓഫീസല്ലേ എൻ്റെ പാൻ കാർഡിൻറ്റെ സ്റ്റാറ്റസ് അറിയാനാണ് ഞാൻ വിളിച്ചത് എൻ്റെ പേര് ഗിരിജ എൻ്റെ ഡെയ്റ്റ് ഓഫ് ബെർത് ജനനത്തീയതി പതിമൂന്ന് അഞ്ച് എൺപത്തൊന്ന് എൻ്റെ തിരിച്ചറിയൽ നമ്പറ് ഒൻപത് എട്ട് നാല് ആറ് ഏഴ് അഞ്ച് മൂന്ന് എൻ്റെ സ്റ്റാറ്റസ് എവിടം വരെയായിന്ന് ഒന്ന് പറഞ്ഞുതരാവോ എൻ്റെ സുഹൃത്തിനു കഴിഞ്ഞ ദിവസം പാൻ കാർഡ് ലഭിച്ചായിരുന്നു അപ്പോൾ എൻറ്റേതും തയ്യാറായി കാണുമെന്നു ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് വിളിച്ചത് അതിനെക്കുറിച്ച് നോക്കീട്ടു ഒന്ന് പറയാമോ